ഹലോ ഇത് മീഷോ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഓഫീസ് അല്ലേ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു ഡ്രസ്സ് അന്വേഷിക്കുന്നതിന് ഭാഗമായിട്ട് വിളിക്കുന്നതാണ് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് ഡ്രസ്സ് വേ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കടകളിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല അപ്പം അത് ഓൺലൈൻ സ്റ്റോറിൽ കണ്ടപ്പോൾ നിങ്ങളുടെ സ്റ്റോറിൽ കണ്ടപ്പോൾ അത്യാവശ്യം വേണ്ടി വിളിച്ചതാണ് ഒരു ബ്ലാക്ക് കളറിലുള്ള നിറത്തിലുള്ള ഒരു ലാർജ് സൈസാണ് എനിക്ക് ആവശ്യം ഒരു ഷർട്ട് ലാർജ് സൈസ് ഷർട്ട് അപ്പോൾ ഞാൻ മുൻപേ ഇതുപോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ മീഡിയം സൈസായിരുന്നു ഞാൻ വാങ്ങിയിരുന്നത് സാധാരണ ഞാൻ മീഡിയം സൈസാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങാറുള്ളത് പക്ഷെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാൽ മീഡിയം സൈസ് എനിക്ക് ടൈറ്റായിരുന്നു അപ്പോൾ അതിനേക്കാളും ഒന്ന് വലുതുള്ള ലാർജ് തന്നെയാണ് ഇപ്പം നിലവിൽ ആവശ്യമുള്ളത് അപ്പം നിങ്ങളുടെ സ്റ്റോറിൽ അത് അവൈലബിളാണെന്ന് ഞാൻ കണ്ടു അപ്പോൾ ഉടനെ തന്നെ അത് സാ ആ ഡ്രസ്സ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഡ്രസ്സിലേക്ക് എത്തിച്ച് തരണം ഓക്കെ താങ്ക്യൂ